പ്ലസ് ടു വിദ്യാഭ്യാസ സമയത്ത് ഞാൻ ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി പഠിക്കുകയുണ്ടായി രണ്ട് കൊല്ലമായിരുന്നു ആ ഒരു വിഷയം ഞാൻ പഠിച്ചത് അതിൽ പാചകമെന്നുള്ളൊരു വിഷയം ഞങ്ങൾ പാചകം ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുവാനും എത്ര അളവുകൾ എടുക്കണം എത്ര സമയം എടുത്ത് ഒരു വിഭവം നമ്മൾ പാചകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത് ഉപ്പ് മാ ആലൂ പൊറാത്ത പായസം അങ്ങനെഉള്ള ഒരു മനുഷ്യർ ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും പഠിച്ചിരിക്കണമെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിലുപരി പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം എന്തെടുക്കണമെന്നുള്ള ആ ഒരു സമയത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് ഫുഡെന്ന് വച്ചാൽ വൃത്തിഹീനമായ ഫുഡുകളും അത് പോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്കളെന്നുള്ള ആ ഒരു രീതിലേക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ നല്ല ഫുഡ്കൾ എന്ന് വച്ചാൽ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഫുഡ്കൾ കഴിക്കുവാനും എത്ര അളവ് കഴിക്കണം കൂടുതൽ അളവ് കഴിക്കുന്നുണ്ടോ ഇതൊക്കെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എങ്കിൽ പാചകം എന്നുള്ള ആ ഒരു പോഷക സംബന്ധമായ കാര്യങ്ങൾ പാചകങ്ങളിൽ പാചകത്തിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആ ഒരു വിഷയം ഹോം സയൻസ് അഥവാ ഫാമിലി കമ്മ്യൂണിറ്റി സയൻസ് എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ എത്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് വച്ചാൽ ഒരു മനുഷ്യൻ്റെ അവരുടെ വെയ്റ്റും ഹൈറ്റും നമ്മൾ കണക്കിലെടുത്ത് ബി എം ഐ എന്ന പറയുന്ന സംഭവം നമ്മൾ എടുക്കും ഓരോ മനുഷ്യർക്ക് ഓരോ ബി എം ഐ ആയിരിക്കും അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്ന് വച്ചാൽ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ വെയ്റ്റ് കുറവ് എന്നുള്ള ഓരോരുത്തർക്കും ഓരോ അസുഖം ഉണ്ടായിരിക്കും ചിലർക്ക് പി സി ഓ ഡി എന്ന പറയുന്ന ഒരു അസുഖം നേരിടാം അങ്ങനെ പല അസുഖങ്ങളും നേരിടുന്ന ഈ ആൾക്കാർക്ക് അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ഹൃദയത്തിന് അസുഖങ്ങളുള്ള ആൾ ഉണ്ടായിരിക്കാം കരളിന് അസുഖം ബാധിച്ചവരുണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ സ്ഥലത്ത് ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങൾ ബാധിക്കുന്നത് പല വഴിയിൽ നിന്നാണ് അപ്പോൾ ഇതിനൊക്കെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് വളരെ എന്ന് വച്ചാൽ മരുന്നുകൾ കഴിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് ഭക്ഷണം കൊണ്ട് ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ശരീരത്തിന് നമുക്ക് ഒരു വിധം അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റും അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പോലെ ഓരോ ബി എം ഐ കണക്കിലെടുത്ത് അവർക്ക് ശരീരത്തിന് ആവശ്യപരമായിട്ടുള്ള ഒരു കാലറി എമൗണ്ട് ഉണ്ടായിരിക്കും അപ്പം ആ കാലറിയിൽ ഉൾപ്പെടുന്ന എന്ന് വച്ചാൽ ടോട്ടൽ കാലറി ആ കാലറിയിൽ ഉൾപ്പെടുന്ന ബ്രേക്ഫാസ്റ്റും ലഞ്ചും ഡിന്നർ സ്നാക്സ് ഇതൊക്കെ ആ ഒരു ടോട്ടൽ കാലറിയിലേക്ക് കണക്ക് കൂട്ടി ഡിവൈഡ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ നിയന്ത്രിച്ച് ഫുഡ്കളൊക്കെ നിയന്ത്രിച്ച് കഴിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖങ്ങളും ഭാവിയിൽ നമ്മൾ മനപ്പൂർവ്വം വരുത്തി വച്ചിരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്